അതെ എനിക്കൊരു സ്മാർട്ട് വാച്ച് ഓൺലൈനിൽ നിന്ന് വാങ്ങണം എന്നുണ്ടായിരുന്നു ഞാൻ നോക്കി പക്ഷേ ഇതിൻ്റെയൊക്കെ നല്ല വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനൊക്കെ ഭയങ്കര പൈസയാണ് എനിക്കറിയാവുന്ന ഏതാണ് ബെസ്റ്റ് നല്ലൊരു വാച്ച്

പിന്നെ എൻ്റെ പൈസയെന്നു ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൂവായിരം നാലായിരത്തിനിടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ ഒരെണ്ണം കിട്ടാൻ വല്ല വഴിയുമുണ്ടോ പിന്നെ